ഇന്ത്യേലെ ഫാഷനെക്കുറിച്ച് പറയാണെങ്കില് ധാരാളമുണ്ട് പഴയവസ്ത്രരീതികളുമായി താരതമ്യം ചെയ്യുമ്പോള് ഇന്നത്തെ ഫാഷനില് വളരെയധികം മാറ്റങ്ങള് വന്നിട്ടുണ്ട് പണ്ടെല്ലാം നമ്മള് നമ്മുടെ ശരീരം ആരെയും കാണിക്കാതായി ആണ് വസ്ത്രങ്ങള് ധരിച്ചിരുന്നത് അതായത് കൈ മുഴുവനുള്ള കുര്ത്ത നമ്മള് ട്രെടീഷ്ണല് ആയിട്ടുള്ള നമ്മുടെ നാടന് രീതികളെ ഉള്ക്കൊള്ളിക്കുന്ന സാരി സെറ്റ് മുണ്ട്കള് മുണ്ട് ഷര്ട്ട്കള് അതക്കെ ആയിരുന്നു നമ്മുടെ നാട്ടില് ആദ്യമായിട്ട് യൂ ഉപയോഗിച്ചോണ്ടിരുന്നത് എന്തിരുന്നാല് നമ്മുടെ നാട്ടില് നിന്നും ഇന്നും ഉടു കയറി ധാരാളം ആള്ക്കാരുകള് മറ്റു രാജ്യങ്ങൾലേക്ക് പോകുന്നുണ്ട് അവർ അവിടെ നിന്നും പുതിതായി ഏറ്റുവാങ്ങുന്ന വസ്ത്ര രീതികളാണ് ഇന്നത്തെ ഇന്ത്യയെ സ്വാധീനിക്കുന്നത് അവര് അവടെപ്പോയി പല പല നാടുകളില് പോയി കണ്ടതും അവര് അവിടെ ശീലിക്കുന്നുമായ വസ്ത്ര ധാരണ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ നമുക്ക് കാണാമ്പറ്റും പണ്ടത്തെപ്പോലെയല്ല കുറെ ആള്ക്കാര് അതായത് വീട്ടമ്മമാര് അടക്കം ഇന്ന് ജീന്സ്സും ടീ ഷട്ടും ഷര്ട്ടും സ്കേട്ടും പാവാടകളുമെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്നാല് പണ്ടൊക്കെ അത് നമുക്ക് ചെയ്യാമ്പറ്റാത്ത ഒന്നായിരുന്നു നമുക്ക് അതിനെല്ലാം ഒരു മടിയായിരുന്നു ഉണ്ടായത് അതുമാത്രമല്ല കാരണം ഇന്ന് നമ്മള് ഒരു സിനിമാ ലോകത്ത് നമ്മളൊരു സിനിമ കാണുകയാല്ത്തന്നെ അതിലെ വസ്ത്രധാരങ്ങള് നമ്മുടെ ആള്ക്കാരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പണ്ട് ധരിച്ചപോലെ ചുരിദാറോ സ്കേട്ടോ അല്ലെങ്കില് സാരിയുമല്ല ഇന്നത്തെ സിനിമാ താരങ്ങള് ധരിക്കാറുള്ളത് അവര് ധരിക്കുന്നത് പുതുമോഡിയെ പലതരം പലതരത്തിലുള്ള ജീന്സുകള് സ്കേട്ട്സ് പല വെറൈറ്റിയുള്ള സ്ലീവ്ലെസായ ഡ്രസ്സുകളക്കെയാണ് അതൊക്കെ നമ്മുടെ നാടിലെ ഫാഷനില് കുറെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് എന്റെ കാര്യത്തില് പറയാണെങ്കില് എനിക്കേറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് കംഫട്ടബിളായി തോന്നുന്നതും അതിൽ നിന്ന് പാശ്ചാത്യവസ്ത്ര രീതിയേക്കാളും ഞാന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ളത് എനിക്ക് കംഫോട്ടബിളായി തോന്നുന്ന വസ്ത്രങ്ങളാണ് അതായത് ജീന്സ്സല്ലങ്കില് ഓവര് സൈസ് ടീ ഷര്ട്ട് അതല്ലെങ്കില് കുര്ത്ത ചുരിദാറാണ് ഞാന് കൂട്തല് പ്രിഫർ ചെയ്യാറ് ഞാന് യൂസ് ചെയ്യുന്ന കുര്ത്തകള് മിക്കതും മെറ്റീരിയലായി വാങ്ങിച്ച് ഞാന് തൈപ്പിക്കുന്നതാണ് അതെനിക്ക് വളരെ കംഫട്ടായിട്ട് തോന്നാറുണ്ട്